ഞാൻ ഗൂഗിള് മീറ്റിൻറെ അകത്ത് പങ്കെടുത്തിട്ടുണ്ട് അത് ഗൂഗിള് മീറ്റെന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഗൂഗിള് ക്രോമിൻ്റെ ആയി ബന്ധപ്പെട്ട് കി ടക്കുന്ന ഒരാപ്ലിക്കേഷനാണ് ഗൂഗിള് മീറ്റെന്ന് പറയുന്നത് അത് നമ്മൾക്ക് കണ്ടുകൊണ്ട് വീഡിയോ കോണ്ഫറന്സിംഗ് പോലെ നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം ഒന്നില് കൂടുതലാളുകള്ക്ക് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാം നല്ല ഒരു അനുഭവമാണ് പിന്നെ നമ്മള്ക്കുണ്ടായ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ക്ലാരിറ്റിയുടെ ഒരു കുറവുണ്ട് അതുതന്നെയല്ല നമ്മൾക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഒത്തിരിയാള്ക്കാര്ക്കതിൽ പങ്കെടുക്കാനായിട്ട് പറ്റും എന്നാൽപ്പോലും ഇടയ്ക്ക് നമ്മൾക്ക് തടസം നേരിടാറുണ്ട് അത് റേഞ്ചിൻ്റെയൊക്കെ പ്രശ്നങ്ങള് കൊണ്ട് തടസം നേരിടാറുണ്ട് എന്നെങ്കില്പ്പോലും നമ്മൾക്കതൊരു നല്ല ഒരു പ്ലാറ്റ്ഫോമായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും നല്ല ഒരു സാങ്കേതികവിദ്യയായിട്ട് തന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൂഗിള് മീറ്റ് ഒത്തിരി ഓഫീസുകൾ ഓഫീസ് സ്ഥാപനങ്ങളുടെ ആണെങ്കിലും വളര്ച്ചയ്ക്കും അതുപോലെത്തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് ഇരുന്ന് സംസാരിക്കാനുള്ള ആള്ക്കാര്ക്ക് കണ്ടും മനസ്സിലാക്കിയും പറഞ്ഞുകൊടുത്തും അത് ചെയ്യാന് വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സാങ്കേതികവിദ്യയായിട്ട് ഗൂഗിള് മീറ്റിനെ കാണാനായിട്ട് പറ്റും അതുപോലെത്തന്നെ കേട്ടിട്ടുണ്ട് സൂം ആപ്പെന്ന് പറഞ്ഞിട്ട് സൂം മീറ്റിംഗ് കേട്ടിട്ടുണ്ട് അതും നല്ല ഒരു സാങ്കേതികവിദ്യയായിട്ട് തന്നെ ഫോണിൻ്റെ ഒരു നല്ലയൊരു നല്ലയൊരു സാങ്കേതികവിദ്യയായിട്ട് തന്നെ അതിനും അതിനെയും കാണാറുണ്ട് നല്ലതാണ് ഗൂഗിള് മീറ്റാണ് എനിക്ക് ഒന്നുംകൂടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഗൂഗിള് മീറ്റില്ക്കൂടെയുള്ള സംഭാഷണങ്ങളൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള നല്ല നല്ലതാണ് ഗൂഗിള് മീറ്റ് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു അത് സാധാരണക്കാര്ക്കാണെന്ന് പറഞ്ഞാൽപ്പോലും കൈകാര്യം ചെയ്യാനായിട്ട് ഒന്നു പറഞ്ഞുകൊടുത്താൽ നമ്മൾക്കതിൽ ഉപയോഗിക്കേണ്ട വിധവും ഒക്കെ മനസ്സിലാകും ഒരു സാധാരണയൊരു സ്മാര്ട്ട് ഫോണിൽ നമ്മൾ കോൾ ചെയ്യാനായിട്ടുപയോഗിക്കുന്ന അതേ ഒരു അത്രയും ഒക്കെ പ്രൊസീജിയറെ നമ്മൾക്ക് ഗൂഗിള് ആ ആപ്പിൻറെ സഹായത്തോടെ നമ്മൾക്ക് ഗൂഗിള് മീറ്റ് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ അല്ലാതെ വലിയ ബുദ്ധിമുട്ടൊന്നും ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് വഴി എനിക്കനുഭവപ്പെട്ടിട്ടില്ല വളരെ നല്ല ഒരു സാങ്കേതികവിദ്യയായിട്ട് തന്നെ ഗൂഗിള് മീറ്റിനെ ഞാന് കാണുന്നു എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ കോണ്ഫെറന്സിംഗ് സാങ്കേതികവിദ്യയാണ് ഈ ഗൂഗിള് മീറ്റ്